പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്നാണ് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം സാങ്കേതിക വിദ്യകളുടെ വളർച്ചകൊണ്ട് നമ്മൾ കുട്ടികളാരും കുട്ടികളെന്നല്ല മുതിർന്നവരും ആരും പുസ്തകങ്ങൾ വായിക്കുന്നില്ല പുസ്തകങ്ങളെന്ന് പുസ്തകം വായന ശീലം എന്ന് പറഞ്ഞത് എന്താ പറയുക മറന്നുതന്നെ പോയി മറന്നിരിക്കുകയാണ് ഇപ്പം പുസ്തകം വായിക്കുക അങ്ങനെയൊരു കാര്യം ഉണ്ടോയെന്ന് തന്നെയാണ് ആകപ്പാടെ വായിക്കുന്നതെന്നു വച്ചാൽ സ്കൂളിൽ പടിക്കുമ്പം സിലബസ്സിലുള്ള കാര്യങ്ങൾ വായിക്കുക അതവിടെ കഴിഞ്ഞു അതോടെ ആ ഒരു വായനാശീലം പൂർണ്ണമായും കഴിഞ്ഞു പിന്നെ ഉള്ളത് മൊബൈലാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനൊക്കെ നോക്കി ഇരിക്കുക അതാണ് ഇതിന്റെ സാങ്കേതിക വിദ്യയുടേയും ഇന്റർനെറ്റിന്റേയും വളർച്ചകൊണ്ട് നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് പറയുമ്പം തന്നെ ഈ കൂട്ടത്തിൽതന്നെ പറയാവുന്ന ഒരു കാര്യമാണ് നമ്മളൊരു വ്യക്തി നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ആണെങ്കിലും സെന്റൻസ് പറയുമ്പോൾ അതിൽ മലയാളം ഭാഷ പൂർണ്ണമായിട്ടും നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റില്ല അതിൽ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇംഗ്ലീഷിൻ്റെ ഒരു വേർഡ് ഇല്ലാതിരിക്കില്ല അങ്ങനെ അങ്ങനെ ആയി അങ്ങനെ മാറി ഇപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മലയാളികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മലയാളത്തിൽ സംസാരിക്കുന്നത് ഒരു കുറവായിട്ടാണ് ഇപ്പം മലയാളികൾ കാണുന്നത് ഇംഗ്ലീഷ് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് കൂടുതൽ എളുപ്പം മലയാളത്തിനേക്കാൾ എന്നു പറയുന്നത് പല രക്ഷിതാക്കൾക്കും ഇപ്പോൾ ഒരു അഭിമാനം ആയിട്ടാണ് തോന്നുന്നത് പക്കാ മലയാളം മാത്രമാണ് എൻ്റെ മകന് അറിയുള്ളു ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്നു പറയുന്നത് ഒരു അപമാനം ആയിട്ടും എടുക്കുന്ന ചില രക്ഷിതാക്കളുണ്ട് ഇതൊക്കെ ഇതാണ് സാങ്കേതിക വിദ്യയുടെയും ഇന്റർനെറ്റിന്റേയും വളർച്ചയ്ക്ക് മലയാള ഭാഷേന്റെ പ്രാധാന്യം കുറയുന്ന ഒരു ഒരു സാഹചര്യമാണ് വന്നത് എന്നാൽ ചില ചിലതരം ആൾക്കാർ മലയാള ഭാഷേനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽക്കൂടി മലയാളം അറിയുന്നത് ഒരു കുറവായിട്ട് കാണുന്നത് ആണ് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോൾ കണ്ടുവരുന്നൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം